ചിത്രരചന പഠിക്കാനുള്ള വയസ്സ് മൂന്ന് വയസ്സിലാണ് ചിലപ്പോള് ജന്മനാതന്നെ ചില കുട്ടികൾക്ക് നേരത്തെ തന്നെ പഠിക്കുവാനായിട്ടുള്ള തോന്നും അപ്പോള് അതനുസരിച്ച് ആ കുഞ്ഞുങ്ങള് പഠിക്കും ചില കുട്ടികളെ നമ്മള് മാതാപിതാക്കള് ഒര് അഞ്ചു വയസ്സൊക്കെ ആകുമ്പോള് ഒന്നാംക്ലാസ്സിൽ ചേർത്തുന്ന ആ സമയത്ത് കൊണ്ട് പഠിപ്പിക്കാൻ കൊണ്ടാക്കുമായിരിക്കും എങ്ങനെയാണേലും കുട്ടികള് കുട്ടികളുടെ കഴിവ് അനുസരിച്ച് അവരതു ചെയ്യും നമ്മളൊക്കെ കുഞ്ഞുന്നാളില് പഠിക്കുമ്പോള് അവർ കഴിവുള്ള കുട്ടികളാണോ എന്ന് തെളിയിക്കുന്നതെന്നു വച്ചാൽ അവര് ഈ അവരുടെ വീട്ടിലെ മതിലുകളിലും ചുവരെഴുത്തുകളിലും പെൻസിലുകൊണ്ടൊക്കെ ചെയ്യും പിന്നെ ഇപ്പോള് മാതാപിതാക്കള് ചേർക്കുമ്പോള് തന്നെ ഡ്രോയിങ് ബുക്കുകളൊക്കെ വേടിച്ചുകൊടുക്കും അപ്പോള് ചിലപ്പോള് ബാലരമ അതുപോലുള്ള കാർട്ടൂണുകളിലൊക്കെ അവര് നല്ല പെയിൻറ്റിങ്ങ് അങ്ങനെയൊക്കെ അടിച്ച് അങ്ങനെയപ്പോള് കുഞ്ഞുങ്ങളുടെ രീതിയെങ്ങനെയാണെന്നുള്ളത് ചില കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല നമ്മള് ആക്കുകയാണ് ചെയ്യുക നമ്മളുടെയൊക്കെ ചെറുപ്രായത്തിലാകുമ്പോള് ഞങ്ങള് നമ്മളുടെയൊക്ക മുറ്റത്ത് നമ്മള് പിന്നെ മണ്ണില് പടം വരയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ ഭിത്തിയിലൊക്ക കട്ടേകേറ്റി ഒട്ടൊക്കെ വരച്ചുമാറ്റും ഇപ്പോള് ശരിക്കും ഒരു കുട്ടീനെ പഠിപ്പിക്കുന്നത് മൂന്ന് വയസ്സ് ഒക്കെ ആകുമ്പോഴാണ്